എൻ്റെ സെക്കൻഡ് പ്രൊഡക്റ്റ് പിന്നെ പ്ലാസ്റ്റിക് കണ്ടൈനേഴ്സാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത് എനിക്ക് പന്ത്രണ്ട് സെറ്റ് ഒരുമിച്ചാണ് കിട്ടിയത് അതായത് പന്ത്രണ്ട് അതായത് ഒരേ പോലെയുള്ളത് അതായത് പല വലിപ്പത്തിലുള്ള ഒരേപോലെയുള്ള പന്ത്രണ്ട് കണ്ടൈനേഴ്സാണ് കിട്ടിയത് അത്യാവശ്യം നല്ലതാണ് അതായത് നമുക്ക് സ്വന്തം സാധനങ്ങൾ കാര്യങ്ങൾ ഒക്കെ വെക്കാൻ നല്ലതാണ് അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതായത് അത്യാവശ്യം ആ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനീ ഓൺലൈൻലായത് കൊണ്ട് നമ്മൾ ഫോണിൽ കണ്ടത്ര വലിപ്പം ആ തോന്നിയില്ല അതെനിക്ക് വലിയൊരു നെഗറ്റീവായിട്ട് തോന്നി ഞാനത്യാവശ്യം വലിപ്പമുണ്ടെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് മേടിച്ചത് പിന്നെ ഇതിനെന്ന് വെച്ചിട്ടെ റിട്ടേണുമില്ല അങ്ങനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ റിട്ടേണുമില്ല അങ്ങനെ ഒരു അവസ്ഥയായി പോയി പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതേയുള്ളു ഒരു മെയ്നായിട്ട് അതാണ് നെഗറ്റീവ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടൈനേഴ്സാണല്ലോ അപ്പോൾ പ്ലാസ്റ്റിക് നമ്മൾ ഭക്ഷണമൊന്നും പാചകം അതിൽ ചെയ്യുക അതായത് ഭക്ഷണം കാര്യങ്ങളും ഒന്നും പാചകം ചെയ്യാൻ പാടില്ല പിന്നതുപോലെ തന്നെ ഒന്നുമിട്ട് വെക്കാൻ പാടില്ല അങ്ങനെയൊക്കെയാണല്ലോ പറയുക അപ്പം മെയ്നായിട്ട് ഇങ്ങനത്തെ രണ്ട് ഇതാണ് വലിപ്പവും കുറഞ്ഞുപോയി പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കായത് കൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രശ്നങ്ങൾ വേറെ ഒന്നുമില്ല